ഹലോ ഇലക്ട്രസിറ്റി ഓഫീസ് ആണോ ഞങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ കറന്റ് യൂണിറ്റ് ആകുന്നത് നൂറ്റി തൊണ്ണൂറ്റി രണ്ടിനും ഇരുനൂറിനും ഒക്കെ ഇടയ്ക്ക് യൂണിറ്റ് ആണ് വൈദ്യുതി ഞങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് എനിക്ക് ഒരു ചെറിയ ബിസിനസ്സ് തുടങ്ങാൻ വേണ്ടിയായിരുന്നു അതായത് ഒരു ചെറിയ സ്റ്റിച്ചിംഗ് ഷോപ്പ് ഇടാനാണ് വീടിനോട് ചേര്ന്നു തന്നെ അപ്പം ഞങ്ങൾ അതിനകത്ത് ഒരു രണ്ട് ഫാനും മൂന്ന് ലൈറ്റും കൂടെ എക്സ്ട്രാ ഉപയോഗിക്കുന്നുണ്ട് അപ്പം എത്രയാണ് ചാര്ജ് നമ്മൾക്ക് പ്രതിമാസം ആവും എന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഷോപ്പിന് വേറെ ആണോ അതോ ഇതിന്റെ യൂണിറ്റ് റേറ്റിന്റെ താരിഫ് ഘടനയൊക്കെ ഒന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു അത് ഓക്കെ